ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും നൽകാൻ കഴിയാത്ത സ ചില സവിശേഷങ്ങൾ ചോദിക്കുക ആണെങ്കിൽ നമ്മളുടെ ഭൂപടത്തിൽ തന്നെ വലിയ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ് വെസ്റ്റേൺ ഗട്ട്സ്ന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം നമ്മുടെ സംസ്ഥാനത്തിൽ കൂടെയാണ് പോകുന്നത് അതുകൊണ്ട് ദാ നമ്മുടെ സംസ്ഥാനത്തിൽ കൂടെയല്ല നമ്മുടെ സംസ്ഥാനവും ഒരു ഭാഗമാണ് അതുകൊണ്ട് അത് വലിയ ഒരു കാര്യമാണ് അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഭൂമദ്ധ്യരേഖക്കടുത്തും കൂടെയാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യമായ വേനൽ ചൂടും ആവശ്യമായിട്ടുള്ള തണലും ഈ പറഞ്ഞ വെസ്റ്റേൻ ഗട്ട്സ്ന്ന് പറയുമ്പോൾ ഈ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും ചെടികളും കായ് ഫലങ്ങളും മൃഗങ്ങളും വനത്തിലുള്ള ഏത് ഏത് ജന്തുക്കളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സവിശേഷങ്ങളായിട്ട് സവിശേഷതകൾ ആയിട്ട് നമുക്ക് ഇതിനെ പറയാവുന്നതാണ് ഇത് മാത്രവല്ല നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ മൂന്നിൽ ഒന്ന് ഭാഗം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് അത് രണ്ടും നമുക്ക് കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനം പകുതി ഭാഗം കരയും പകുതിഭാഗം കരയും പകുതി ഭാഗം കടലും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കടലും എന്ന് പറയുന്നത് നമുക്ക് അറബിക്കടൽ തന്നെയാണ് നമുക്ക് ഉള്ളത് അറബിക്കടൽ ആണ് നമ്മുടെ കേരള നമ്മുടെ സംസ്ഥാനത്തിന് അടുത്തായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ഈ സംസ്ഥാനത്തിൽ നിന്നും നമ്മുടെ ഈ ജില്ലക്ക് ഉള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലക്ക് മാത്രമാണ് വെസ്റ്റേൺ ഗട്ട്സുമായിട്ടൊരു കണക്ഷനൊള്ളത് അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടൊരു കാടും വനപ്രദേശവും ഇതെല്ലാം കറക്റ്റ് വേണ്ടത് നമുക്ക് ഇവിടുന്ന് മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പം സംസ്ഥാനം നമ്മുടെ സംസ്ഥാനം എന്ന് പറയുമ്പം പച്ചപ്പ് നൽകുന്നതും ഹരിതാഭയുള്ളത് ഒക്കെയാണ് അതുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോവാണെങ്കിൽ നമുക്ക് കുറെ ഒക്കെ ഒന്നെങ്കിൽ പച്ചപ്പ് ഹരിതാഭം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ പട്ടണങ്ങളും കുറെ ബിൽഡിങ്ങുകളും കുറെ അങ്ങനെ നമുക്ക് ഫുള്ളൊരു റൂറൽ സംഭവങ്ങളായിരിക്കും എല്ലാം പക്ഷേ നമ്മുടെ ഇങ്ങോട്ട് വരാം നേരത്ത് നമുക്ക് അതുമുണ്ട് ഇതുമുണ്ട് നമുക്ക് മൊത്തത്തിൽ രണ്ടും ചേർന്ന ഒരു സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംസ്ഥാനത്ത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ഉള്ളൊരു പേരും കൂടെ വരാൻ കാരണവും ഇതുകൊണ്ട് മാത്രമാണ്

അങ്ങനെ ഒക്കെയാണ് നമ്മളുടെ ഇവിടത്തെ സവിശേഷതകൾ പിന്നെ നമ്മുടെ സംസ്ഥാനത്തിനെപ്പറ്റി പറയുക ആണെങ്കിൽ ഏതൊരു ഏതൊരു വിദേശിക്ക് നമുക്ക് ധൈര്യപൂർവം കാണിച്ച് കൊടുക്കാവുന്ന ഒരു നാടാണ് അപ്പം നമുക്ക് ധൈര്യപൂർവം കാണിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ നാട് നടന്ന് നമ്മുടെ നാടിങ്ങനെ ആണ് നമുക്ക് നമ്മുടെ നാടിനെ പറ്റി അറിയിക്കാനുണ്ടേ നമുക്ക് ഇതേപോലെ കാണിച്ചു കൊടുക്കാം നമ്മുടെ നാടിങ്ങനെ ആണ് നമുക്ക് ഇന്ത് ഇങ്ങനെങ്ങനെക്കെ സാധനങ്ങൾ ഉണ്ട് നമുക്ക് ധൈര്യപൂർവം നമുക്ക് അഭിമാനത്തോടെ കാണിക്കാവുന്ന ഒരു നാട് കൂടെയാണ് നമ്മുടെ ഈ കേരളം അപ്പോൾ കേരളം നമ്മൾ സംസ്ഥാനത്തിനെപ്പറ്റി പറയാണേൽ ഇതൊക്കെ ആണുള്ളത്